ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അത് വാക്കുകളിലൊതുങ്ങാത്ത ഒന്നാണ് ദഷിണേന്ത്യയിലെ വലിയ ഭൂ പ്രദേശമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ് വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് പിന്നെ ഇന്ത്യയുടെ പ്രത്യേകതയെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ട്ടപ്പെട്ട് ഒരുപാട് പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവിതം കൊടുത്ത് നേടിയതാണ് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യ അതായത് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിൽ ഒരുപാട് പേര് ജീവൻ ബലിയർപ്പിച്ചും വളരെ ത്യാഗപൂർവം പോരാടിയും ഒക്കെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഇതിലേക്കെത്തിയത് പണ്ട് കാലത്ത് വളരെ സമ്പന്നമായ ഒരു ചരിത്രമാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്ഥമാണ് ഇന്ത്യ കാരണം ജനസംഖ്യയിൽ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്നു വച്ചാൽ മഹാത്മാ ഗാന്ധി ഒരുപാട് എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് മഹാത്മാ ഗാന്ധിയുടെ അഹിംസ എന്ന മാർഗ്ഗത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് ചരിത്രങ്ങൾ പറയപ്പെടുന്നത് അതുപോലെ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ബീ ആർ അംബേദ്ക്കർ ഭഗത്സിങ് അങ്ങനെ അതുപോലെയുള്ള ഒരുപാടു നേതാക്കന്മാരുടെ ഉറക്കമുളച്ചുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയേ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്നതെന്ന് വച്ചാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രധാന്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതായത് എല്ലാവർക്കും എല്ലാ മതത്തിലും വിശ്വസിക്കാം അങ്ങനെയാണ് എന്ത് ഒരു മത പരമായിട്ടുള്ള ചടങ്ങ് നടന്നാലും ഇന്ന മതക്കാർ മാത്രമേ അതിൽ പങ്കെടുക്കുന്നു എന്ന് എന്നുള്ളതില്ല എല്ലാവരും ഒരു പോലെ ആണ് എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങളും വിശ്വാസങ്ങൾക്കും അതിൽ നിന്നൊക്കെ മൂല്യം കൽപ്പിക്കുന്നത് എല്ലാവരും ഒരുപോലെ ആണ് അതുകൊണ്ടു തന്നെ ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏക മതത്തിൽ വിശ്വസിക്കാനും നമുക്കായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉള്ള രാജ്യമായിട്ട് ഇന്ത്യയെ തോന്നിയിട്ടില്ല ഒരു ഇന്ത്യക്കാരി ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അത്രയൊക്കെയാണ് എനിക്ക് ഇന്ത്യയെ കുറിച്ച് പറയാനുള്ളത്